സ്റ്റേജിലോ സദസ്സിലോ പാടുന്നത് പാടുമ്പം എനിക്ക് പരിഭ്രമമോ പേടിയോ അങ്ങനെ ഉണ്ടാകാറില്ല ചില സാഹചര്യങ്ങള് നമുക്ക് ഉണ്ടാകാറുണ്ട് കാരണം ചിലപ്പോൾ നമ്മള് കൃത്യമായ പ്രാക്ട്ടീസ് എടുത്തിട്ടുണ്ടാകാറില്ല അപ്പം നമുക്ക് ഭയമുണ്ടാകാം അല്ലെങ്കിൽ നമുക്ക് കയറുന്നതിന് മുമ്പൊരു പേടി ഉണ്ടാകാം പക്ഷെ അല്ലാത്ത സാഹചര്യങ്ങളില് നമുക്ക് പേടിയോ ഭയമോ അങ്ങനെ ഉണ്ടാകാറില്ല ഇപ്പം നമ്മൾ അത് മറികടക്കാന് ചെയ്യണ്ട കാര്യങ്ങള് കൂടുതലായിട്ടും സ്റ്റേജ് നമ്മള് യൂസ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മള് ഒ ഒരിക്കൽ കയറിയാൽ ചിലപ്പോൾ പേടിച്ചിട്ട് പിന്നെ കയറാതിരുന്നാൽ നമുക്ക് ജീവിതകാലം മുഴുവനായി പേടി നിലനില്ക്കും എന്നാൽ നമ്മള് കയറി കയറി ആ സ്റ്റേജിനോടോ സദസ്സിനോടോ നമുക്ക് പേടി ഇല്ലാതാക്കാന് പറ്റും ഒര് തവണ കയറി രണ്ട് തവണ കയറി മൂന്ന് തവണ കയറുമ്പം നമ്മുടെ ആ ഒരു ഉഷ്വല്ലി നമുക്ക് ആ ഒരു സ്ട്രെസ്സ് പോയിക്കിട്ടും ആ ഒര് പേടി ആ പരിഭ്രമമൊക്കെ മാറിക്കിട്ടും അപ്പം രണ്ടാമത്തെ കാര്യം ചിലപ്പോൾ നമക്ക് പേടിയോ എന്ത് തോന്നുന്നു നമ്മള് കൃത്യമായ പ്രാക്ട്ടീസ് എടുത്തിട്ടുണ്ടാകില്ല സാഹചര്യങ്ങളാണ് നമ്മൾ കൃത്യമായ പ്രാക്ട്ടീസ് എടുത്തിട്ടുണ്ടാകില്ല എന്നുടെങ്കിൽ നമുക്ക് ആ ഒര് ടെന്ഷന്സ് എപ്പഴും നമ്മുടെ കൂടെ ഉണ്ടാകും നമുക്ക് ആ ഒര് പേടി ആ ഒര് ബ പരിഭ്രമം ആ ഒര് സ്റ്റേജിലും സദസ്സിലും കയറുന്ന സമയത്ത് നമ്മളെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും തെറ്റുമോ തെറ്റുമോ അല്ലെങ്കിൽ ഞാന് പാടിയാൽ ആ വരികള് ശരിയാകുമോ അങ്ങ് അങ്ങനെ ഉള്ള ടെന്ഷന്സൊക്കെ ഉണ്ടാകും മൂന്നാമത്തെ കാര്യം കൃത്യമായ പ്രണൌന്സേഷന്സ് നമ്മള് പഠിക്കുക എന്നുള്ളതാണ് ആ പാട്ടിന്റെ ചില വരികളിലുള്ള പ്രണൌന്ഷേസ് തെറ്റുമോ എന്നുള്ളൊരു പേടി നമ്മളെ ചിലപ്പം സ്റ്റേജില് നിന്ന് കയറുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരു പേടി ഉണ്ടാകാം പിന്നെ ചില നമുക്ക് മിക്കപ്പൊളും ഈ പേടി വരുന്നത് തെറ്റുമോ ആള്ക്കാര് കളിയാക്കുമോ എന്നുള്ളതാണ് അപ്പം അത് നമ്മള് മാക്സിമം ഇല്ലാ കുഴപ്പമില്ല തെറ്റിയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയില് കയറുന്ന സമയത്ത് നമുക്ക് പേടി കുറയ്ക്കാൻ പറ്റും അത്പോലെ മറ്റുള്ളവരെന്ത് കരുതും എന്ന് വിചാരിക്കുന്നത് കുറയ്ക്കുവാണെങ്കിലും നമുക്ക് പേടി കുറയ്ക്കാൻ പറ്റും